കൈകൊണ്ടുണ്ടാക്കിയ കാർഡോ ചിത്രമോ നമുക്ക് ആരെങ്കിലും സമ്മാനിച്ചിട്ടുണ്ടോയെന്നു ചോദിച്ചാൽ നമ്മൾ എനിക്ക് സ എനിക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് എങ്കിൽത്തന്നെയും സ്വന്തമായിട്ട് വരച്ചതാണോയെന്നു എനിക്ക് അറിയത്തില്ല എങ്കിലും ഞാൻ ഒരു എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു രീതിയെന്നു വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം വന്നപ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വരയ്ക്കുന്ന ആളാണ് അപ്പോൾ എൻ്റെ എനിക്കൊരു ആഗ്രഹം അവൾക്ക് അവൾക്കു നല്ല ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നുന്ന രീതിയിലൊരു എന്തെങ്കിലും ഒന്നു വരച്ചു കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അവളുടെ അമ്മയുടെ ഒരു ഫോട്ടോ എൻ്റെ കയ്യിലാണ് ഉള്ളത് അവളുടെ അമ്മയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തു ചെയ്തു ആ ഫോട്ടോ വെച്ചിട്ട് എനിക്ക് ആകുന്ന വിധത്തിൽ ഞാൻ എൻ്റെ മനസ്സും ശരീരവും എല്ലാം പൂർണ്ണമായിട്ട് അതിനകത്ത് അർപ്പിച്ചുകൊണ്ടുതന്നെ ഞാനൊരു ചിത്രം വരച്ചു കൊടുത്തു പക്ഷെ അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അന്നുമുതൽ അവൾ എപ്പോഴും എന്നോടു പറയും എടി നീ ഇതു പഠിക്കണം കേട്ടോ ഇനി പഠിക്കണം നന്നായിട്ട് മുന്നോട്ടുപോകും നിനക്ക് പോകാൻ പറ്റും നല്ലൊരു കഴിവു നിനക്കുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാനതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഇതുവരെ എടുത്തിയിട്ടില്ല എങ്കിലും ആ പടം കാണുമ്പോൾ കാരണം ഞാൻ വീട്ടിലിരുന്ന് എൻ്റെത എൻ്റെ വീട്ടിൽ എൻറ്റേതായ എനിക്ക് ആസ്വദിക്കാൻ വേണ്ടി മാത്രം ആയിട്ടിപ്പോൾ ഞാനങ്ങനെ വരക്കാറുണ്ട് എങ്കിലും ആ പടങ്ങളൊക്കെ എപ്പോഴും എപ്പോഴും എടുത്തു നോക്കാറുണ്ട് ഞാൻ കാരണം ഇത് കാണുമ്പോൾ കാണുമ്പോൾ നമ്മളുടെ ശരീരവും മനസ്സും ഒക്കെ നമ്മളിൽത്തന്നെ അർപ്പിച്ച് ഒരു ഇത് ചെയ്യാമെന്നു പറയുമ്പോൾ നമുക്ക് ആ പടങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടാണ് തോന്നുന്നത് അത്രയും ചെയ്തതായിട്ടു ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോയെന്നൊക്കെ ഉള്ളൊരു ഇത് ചത്രങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ഒരുപോലെ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ആ ചി ആ ചിത്രത്തിന് ഒരു ജീവനെങ്കിലും ഉണ്ടാകാവുന്ന രീതിയിലുള്ളൊരു ചിത്രം വരക്കാൻ പറ്റത്തുള്ളൂ മറ്റുള്ളവർക്ക് നമ്മുടെ ജീവനുള്ള ഒരു ചിത്രം എന്നുള്ള രീതിയിൽ വേണം ആ ചിത്രത്തിൻ്റെ ഇതു വരാനായിട്ട് ആ രീതിയിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എനിക്കത് കുടുതലായിട്ട് പഠിക്കണമെന്നു വലിയ ആഗ്രഹം ഉണ്ട് അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്